എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നുപറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എന്നെപ്പറ്റിച്ചു എൻ്റെ കൂട്ടുകാർ എന്നിലൂടെ ഉണ്ടാക്കിയെടുത്ത വളരെ വലിയ ഒരു കടം അത് ഒറ്റയ്ക്ക് കൊറോണ സമയത്ത് എല്ലാം അടച്ചു കിടക്കുമ്പോൾ പെട്രോൾ പമ്പുകളിൽ നിന്നും കടകളിൽ നിന്നും വരുമാന മാർഗ്ഗമായി ഉണ്ടാക്കി അതുകൊണ്ട് എൻ്റെ എല്ലാ കടങ്ങളും അടച്ച് എല്ലാം വീട്ടി നല്ല രീതിയിലേക്ക് തിരിച്ചു വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നു പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ അഭിമാന നേട്ടം എന്നു പറയുന്നത് എൻ്റെ കൂട്ടുകാർ കാരണം എനിക്ക് വളരെ അധികം നഷ്ടം ഉണ്ട് ആ നഷ്ടം എനിക്ക് പരിഹരിക്കാൻ എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച എല്ലാവരും എന്നെ കൈയ്യൊഴിഞ്ഞപ്പോഴും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കി പിന്നീട് ആരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കാതെ സ്വന്തമായി പണിയെടുത്ത് വളരെ നല്ല രീതിയിൽ എൻ്റെ എല്ലാ കടവും കുറച്ചു കുറച്ചായി വീട്ടി അവസാനം എല്ലാം വീട്ടി ഒരു ലാപ്ടോപ്പ് മേടിക്കുകയും ഒരു മൊബൈൽ മേടിക്കുകയും ഒരു ബൈക്ക് മേടിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ നേട്ടം എന്ന് എനിക്ക് തോന്നുന്നത് ആരിൽ നിന്നും യാചിക്കാതെയും വീട്ടിൽ നിന്ന് ചോദിക്കാതെയും സ്കോളർഷിപ്പുകളിൽ നിന്ന് കിട്ടിയ പൈസയും അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ചേർത്ത് സ്വരൂപിച്ച് വച്ച് ഉറുമ്പ് അരിമണി കൂട്ടുന്നതു പോലെ കുറച്ചു കുറച്ചായി കൂട്ടി വളരെ വലിയൊരു തുകയാക്കി ഒരു ബൈക്ക് സ്വന്തമാക്കുക സ്വന്തമാക്കിയതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ നേട്ടമായി എനിക്ക് തോന്നുന്നത് അതിനോളം വരുന്ന വേറൊരു നേട്ടം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല